ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളായിട്ട് സാമ്പത്തിക വ്യവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മുടെ നോട്ടും കാര്യങ്ങളൊക്കെ പിൻവലിച്ച സമയത്ത് നമ്മുടെ സാമ്പത്തിക നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇടിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നോട്ട് നിരോധിച്ച ഉടനെ തന്നെ നമ്മുടെ ചിലവ് അതായത് ആൾക്കാർ വിൽക്കുന്ന സാധനങ്ങളും വാങ്ങുന്നതിൻ്റെയൊക്കെ അളവ് കുറച്ചിരുന്നു കാരണം എന്ത് വച്ചു കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊന്നും ആരുടെയടുത്തും പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം പഴയ അഞ്ഞൂറിൻ്റെ നോട്ടും പഴയ ആയിരത്തിൻ്റെ നോട്ടൊക്കെയായിരുന്നു ഇതൊക്കെ ഓവറ് നമ്മുടെ കയ്യിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ബാങ്കിലൊക്കെ പോയിട്ട് അപ്പോൾ ബാങ്കിലൊക്കെ നീണ്ട നിരയിലുള്ള ക്യുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ നമുക്ക് ഈയിടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ പറ്റേ അടിയിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻ്റർനെറ്റ് വഴിയാണ് ഇപ്പം ഡിജിറ്റൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കെല്ലാം ഓൺലൈനിലൂടെ പേയ് ഓൺലൈനിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഒന്നുമില്ല നമ്മൾ ഇപ്പം എവിടെ നിന്നെങ്കിലും ക്യാഷ് കിട്ടണമെങ്കിലൊക്കെ നമ്മൾ അവിടെ പോയിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ക്യാഷൊക്കെ പേയ്മെൻ്റ് ചെയ്യാൻവേണ്ടി സാധിക്കുന്നതാണ് അപ്പം നമുക്ക് ഇപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ സാമ്പത്തിക മേഖലയൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്